ഇത് ഗൈഡ് അല്ലെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നതായിരുന്നു ആ അപ്പോൾ ഈ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഫെസ്ടിവൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ആ ആ ആ ആ പറയാൻ പറ്റുള്ളൂ അല്ലേ ഓക്കേ ഓക്കേ ഞങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എല്ലാ പരിപാടിയും കാണാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ ദീപാവലി ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ മാസം ആ ടൈമിലാണോ നടക്കുന്നത് ആ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിന് മുന്നേ വരും അതിന് മുന്നേ വരികയാണെങ്കിൽ ഏത് ഏത് ആഘോഷം ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ഒരു ഓഗസ്റ്റിലും സെപ്റ്റംബർ സെപ്റ്റംബറൊക്കെ ആയിട്ട് വരുമ്പം പത്തു ദിവസത്തെയല്ലേ

ആ വയ്ക്കാറല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ ദീപാവലി ഒക്കെ എങ്ങനെയാണ് ആഘോഷിക്കാറ് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ആ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ സെപ്റ്റംബർ മാസം വരാം എന്നാൽ ആ നിങ്ങൾ എല്ലാം റെഡി ആക്കി വയ്ക്കില്ലേ ആ ഓക്കേ ഓക്കേ സെറ്റ് ചെയ്യില്ലെ ഓക്കേ ഓക്കേ ഞങ്ങൾ ഒരു മാസത്തെ പരിപാടി ആയിട്ട് വരാം എന്നാൽ ആ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു ഓക്കേ അഡ്വാൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് വേഗം അത് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം കേട്ടോ